പാലക്കാട് ജില്ലയിലെ ഇപ്പോൾ നമ്മൾ മെയ്നായിട്ട് ഉല്ലാസപ്രവർത്തനം അല്ലെങ്കിൽ വിനോദത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മൈതാനത്താണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടീട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ളതാണ് പിന്നെ അതുപോലെ നമുക്ക് അവരെ നമുക്ക് എക്സ്സസൈസ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്ഥലം കൂടി ഉണ്ട് വലിയ ആൾക്കാർക്ക് പിന്നെ അതുപോലെ നമുക്ക് മലമ്പുഴ ഡാം അവിടെ ഒരു പാർക്കുണ്ട് അതുപോലെ പോത്തുണ്ടി ഡാം അവിടെയൊക്കെ ഈ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാം ആ അവിടുത്തെ പാർക്കുകളിലൊക്കെ ആണെങ്കിൽ നമ്മള് പൈസ കൊടുക്കേണ്ടി വരും പിന്നെ മറ്റെ മൈതാനത്തുള്ള പാർക്കിനത്ര പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തിയേറ്ററുകളും കാര്യങ്ങളൊക്കെ വച്ച് നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക പഞ്ചായത്തുകളിലും ഇപ്പോൾ നമ്മള് കോട്ടായി പഞ്ചായത്തിലെ നോക്കുകയാണെന്ന് പറയുമ്പോൾ രണ്ട് തിയേറ്ററുണ്ട് പെരിങ്ങോട്ടുകുരിശ്ശി പഞ്ചായത്തിന് രണ്ട് തിയേറ്ററുണ്ട് പിന്നെ പാലക്കാട് ടൗൺ ഏരിയയാണ് നോക്കണതെന്ന് പറയുമ്പോൾ അവിടെയും മൂന്നുനാല് ടൗണിലേറെ ടൗൺ റെയിൽവേ സ്റ്റേഷന്റെയവിടെ രണ്ട് തീയേറ്ററുണ്ട് പിന്നെ നമുക്ക് വേറെ തിയേറ്ററ് വേറെ നോക്കണമെങ്കിൽ ആ ഉണ്ട് അവിടത്തെ ഇപ്പോൾ ടൗൺ റെയിൽവേ സ്റ്റേഷന്റെയവിടെ രണ്ടെണ്ണമുണ്ട് പിന്നെ അപ്പുറത്ത് മാർക്കറ്റിൻ്റെ അവിടെ ആ ഏകദേശം ഒരു നാലഞ്ച് തിയേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് പിന്നെ കലാകായിക പരിപാടിക്ക് ഗ്രൗണ്ടുകൾ നോക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയങ്ങള് രണ്ട് മൂന്നെണ്ണമുണ്ട് പാലക്കാട് ജില്ലയിൽ പിന്നെ നമുക്ക് പഞ്ചായത്തടിസ്ഥാനത്തിലാണെങ്കിപ്പോൾ സ്കൂൾ ഗ്രൗണ്ടുകള് നമുക്കുണ്ട് പിന്നെ അതുപോലെ കോട്ടായില് സ്കൂൾ ഗ്രൗണ്ടുണ്ട് സി എസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടുണ്ട് അങ്ങനെ ഗ്രൗണ്ടുകള് കുറേ ഉണ്ട് കളിക്കാനായിട്ട് പിന്നെ ചെറിയ ചെറിയ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് നോക്കണ പറയുമ്പോൾ ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ കുറേ എണ്ണം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കളിക്കാനുള്ള സംവിധാ സംവിധാനങ്ങള് കാര്യങ്ങളൊക്കെയുണ്ട് പൂന്തോട്ടങ്ങളും നമ്മളെ പൂന്തോട്ടങ്ങളെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഏകദേശം ഇപ്പോൾ എല്ലാവിടെയും ഈ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് നല്ല രീതിയിൽ പൂക്കളും കാര്യങ്ങളുമൊക്കെയുള്ളത് ആ കോട്ട മൈതാനത്തും പിന്നത്യാവശ്യം ഒരു പൂവും ഇതുപോലത്തെ സ്ഥലവുമുണ്ട് അവിടെ പിന്നെ കളിക്കാനും പിന്നെ എക്സർസൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടും ആൾക്കാർക്ക് ഇഷ്ടം പോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കിട്ടുന്നതാണ്